ഇരുപത്തഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിനാല് പതിനാറ് അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന്